നമ്മുടെ മാതൃഭാഷയാണ് മലയാള ഭാഷ അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന മറ്റൊരു ഭാഷയാണ് ഇംഗ്ലീഷ് സംസ്കൃതത്തിൽ നിന്നാണ് നമ്മുടെ മാതൃഭാഷയുടെ ഉത്ഭവം പക്ഷെ സംസ്കൃതത്തേക്കാട്ടിൽ കൂടുതൽ ഇംഗ്ലീഷാണ് നമ്മുടെ മലയാളഭാഷയെ കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് കാരണം ഇംഗ്ലീഷിൻ്റെ വരവോടുകൂടി നമ്മളുടെ അടിസ്ഥാനമായി നമ്മൾ പഠിച്ചിരിക്കുന്നൊരു ഭാഷയായി മാറപ്പെടുകയാണ് ഇംഗ്ലീഷ് കാരണം നമ്മൾക്കു പുറത്തു പോകണമെങ്കിലും അതല്ല വേറൊരു ഭാഷക്കാരനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും നമ്മളേറ്റവും കൂടുതലുപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ് സംസ്കൃതം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയുടെ ഉത്ഭവം സംസ്കൃതത്തിൽ നിന്നാണെങ്കിലും നമ്മൾ വളരെ കുറച്ച് മാത്രം ഉപയോയിക്കുന്നതാണ് സംസ്കൃതം പക്ഷേ എന്നാൽ ഇംഗ്ലീഷ് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് എല്ലാ മേഖലയിലും ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമായി വരികയാണ് കാരണം നമുക്ക് യൂണിവേഴ്സലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് പറ ഭാഷ അറിഞ്ഞിരിക്കുന്നത് മാണ്ടേട്ടറിയാണ് കാരണം മലയാള ഭാഷ വേറൊരാൾക്കും മനസ്സിലാകാനും സംസാരിക്കാനും വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്നതാണ് അതുകൊണ്ടു തന്നെ നമ്മളിംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നതും നമ്മളത് പറയാൻ നമുക്ക് സാ ഫ്ലൂവൻ്റായിട്ട് സാധിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്